നിങ്ങളുടെ ഗ്രാമത്തിൽ ആർക്കെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞാൽ എന്തു ചെയ്യുമെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ അപ്പം നമ്മുടെ ആരുടെയെങ്കിലും ഗ്രാമത്തില് ആരുടെയെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞാല് നമ്മളാദ്യം അവരെ നമ്മളാദ്യം ആൾക്കാരെ വിളിച്ചുകൂട്ടും ഇങ്ങനെ ആൾക്ക് ആപത്തുപറ്റി നിങ്ങളൊന്നോടി വരാമോയെന്ന് ചോദിക്കും അതിനുശേഷം നമ്മളവരെ എഴുന്നേല്പ്പിച്ച് നമ്മള് വീട്ടില് കൊണ്ടുവരും നമ്മുടെ നമ്മുടെ പറമ്പിലൊക്കെയാണെങ്കില് നമ്മളവരെ വീട്ടില് കൊണ്ടുവരും വീട്ടില് കൊണ്ടുവന്നുകഴിഞ്ഞിട്ട് നമ്മളവർക്ക് നമുക്ക് പറ്റുന്ന പ്രാഥമിക ചികിത്സയൊക്കെ എന്തെങ്കിലും എന്താണ് എന്താണ് പറ്റിയത് എന്ന് നോക്കി നമ്മളെന്നിട്ടത് ഏത് ഭാഗത്താണ് പറ്റിയത് എങ്ങനെയാണ് പറ്റിയത് എവിടെയാണ് വീണത് എന്നൊക്കെ നോക്കി നമ്മളതിനുള്ള ശരിയായൊരു ചെറിയൊരു പ്രാഥമിക ചികിത്സ കൊടുത്തതിന് ശേഷം നമ്മളവരെ അവർക്ക് നമ്മുടെ ഈ പ്രാഥമിക ചികിത്സ കൊണ്ട് അവർക്ക് വേദനകളൊന്നും മാറുന്നില്ലെങ്കില് നമുക്ക് എങ്ങനെയാണ് ഒത്തിരി ഒടിവോ അങ്ങനെ ചെറിയ ഉളുക്കൊക്കെയാണെങ്കില് നമ്മള് ചെറിയ കുഴമ്പ് പുരട്ടിയോ നമ്മളല്ലെങ്കില് എന്തെങ്കിലും ഓയിന്മെൻ്റ് തൂത്തോ അങ്ങനെയൊക്കെ നമ്മളവരെ അവരെ നോക്കും അതിനുശേഷം നമുക്ക് അതൊന്നും ചെയ്തിട്ടും നമ്മള് ഒരു ദിവസം നോക്കി നമ്മളെന്നിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് നമുക്കവർക്ക് ഒന്നും പറ്റുന്നില്ലെങ്കില് നമ്മള് അവരെയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടപോകും ഹോസ്പിറ്റലിൽ കൊണ്ടു പോയിട്ട് നമ്മളാദ്യം ചെയ്യുക നമ്മളവർക്ക് ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും അവർക്ക് എക്സ് റേ എടുക്കണമെന്ന് പറയും എക്സ് റേ എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മളവരെ എക്സ് റേ എടുക്കാൻ വേണ്ടി അങ്ങ് കൊണ്ടുപോകും എക്സ് റേ എടുക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മള് ഡോക്ടര് എക്സ് റേ നോക്കിയിട്ട് ഡോക്ടർ പറയും എന്താണ് എവിടെ എന്താണ് പറ്റിയത് എവിടെയെല്ലാം ഒടിവുണ്ടോ ചതവുണ്ടോ അങ്ങനെ നമ്മളോട് പറയും അപ്പോള് ഒടിവുണ്ട് ചതവുണ്ടെങ്കില് നമ്മള് ചതവിനുള്ള മരുന്നുകള് അവിടെ ചെയ്യും ചതവിനുള്ള മരുന്ന് എന്താണെങ്കില് അത് ഡോക്ടര് ചെയ്യും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന മരുന്നുകളൊക്കെയാണെങ്കില് നമ്മള് തന്നെ ചെയ്യും പിന്നെ ഒടിവുകളൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടർ എക്സ് റേയിൽ പറയുന്നതെങ്കില് നമ്മള് ഒടിവുകൾക്കുള്ള ഒന്നുകിൽ പ്ലാസ്റ്റര് ഇടും മിക്കവാറും തന്നെ നമ്മള് ഒടിവൊക്കെ വന്നാല് നമ്മള് പ്ലാസ്റ്ററിടുകയാണ് ചെയ്യുന്നത് പ്ലാസ്റ്ററിട്ടിട്ട് നമ്മള് ആശുപത്രിയിൽ കിടക്കണമെന്ന് പറയുകയാണെങ്കില് നമ്മള് ആശുപത്രിയിൽ കുറെ ദിവസം കിടക്കും എത്ര ദിവസം കിടക്കണമെന്നാണ് പറയുന്നതെങ്കിൽ നമ്മളത്രയും ദിവസം ആശുപത്രിയിൽ കിടക്കും എന്നിട്ട് നമ്മള് ആശുപത്രിയില് കിടന്നിട്ട് ഡോക്ടർ എത്ര ദിവസമാണ് റെസ്റ്റ് എടുക്കാൻ പറയുന്നതെങ്കില് നമ്മളത്രയും ദിവസത്തെ റെസ്റ്റെടുക്കും റെസ്റ്റ് എടുത്തിട്ട് നമ്മള് വീട്ടില് ആശുപത്രിയില് നിന്ന് നമ്മള് വീട്ടില് വരും വീട്ടില് വന്ന് കഴിയുമ്പോള് നമ്മള് രോഗിക്ക് ശരിയായ രീതിയിലുള്ള എല്ലാ പരിചരണങ്ങളും നമ്മള് രോഗിക്ക് കൊടുക്കും രോഗിക്ക് എന്താണ് പറയുക എന്താണ് എഴുന്നേറ്റ് നടക്കാൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെങ്കില് നമ്മള് അതിനുള്ള ഹെൽപ്പ് ചെയ്യും ആ പിന്നെ കറക്റ്റ് സമയത്ത് നമ്മള് മരുന്നും കാര്യങ്ങളും എല്ലാം നമ്മള് കറക്റ്റ് സമയത്ത് കൊടുക്കും പിന്നെ എന്താണ് ആ രോഗിക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നമ്മളാരോഗിക്ക് വേണ്ടി നമ്മള് ചെയ്യും പിന്നെ നമുക്ക് രോഗിക്ക് രോഗിക്ക് ഈ ഒടിവോ ചതവോ വന്നതിൻ്റേതായ യാതൊരു ബുദ്ധിമുട്ടുകളും രോഗിയെ അറിയിക്കാതെ നമ്മള് ആ രോഗിക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും നമ്മള് ചെയ്തുകൊടുക്കും രോഗിക്ക് എന്താണോ ആവശ്യമെങ്കില് ആവശ്യമുള്ള സമയത്ത് നമ്മള് മരുന്നുകള് കൊടുക്കും മരുന്ന് ഭക്ഷണം എല്ലാം നമ്മള് കൊടുക്കും തീരെ നടക്കാനൊന്നും പറ്റില്ലെങ്കില് നമ്മള് കുളിക്കാന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മള് ഹെൽപ്പ് ചെയ്തുകൊടുക്കും പിന്നെ നമ്മള് അന്ന് രോഗിക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊന്നും ഉണ്ടാകാതെ നമ്മള് രോഗി എപ്പോഴും നല്ലൊരു എന്താണ് നല്ലൊരു സപ്പോർട്ട് ഇത് സാരമില്ല പയ്യെ ശരിയായിക്കോളും ഇതൊന്നും ടെൻഷന് അടിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മള് രോഗികളെ വളരെയധികം എന്താണ് ഊർജ്ജസ്വലരാക്കും അവരൊട്ടും ഈ എനിക്കിങ്ങനെ കയ്യും കാലും ഒടിഞ്ഞിവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനെന്ത് ചെയ്യും എനിക്കൊന്നും എന്ത് ചെയ്യും എനിക്കാകപ്പാടെ നിരാശയാണല്ലോ എന്നെല്ലാം ഓർത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ബുദ്ധിമുട്ട് തോന്നുന്ന അവസ്ഥയുള്ളവരാണെങ്കില് നമ്മളവർക്ക് അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ നമ്മളവരെ നമുക്കെന്ത് മാത്രം ട്രീറ്റ് ചെയ്യാമോ നമ്മളതുപോലെ അവരെ കാര്യമായിട്ട് നമ്മള് നോക്കും അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും നമ്മളവർക്ക് സഹായം ചെയ്യും ഇപ്പോള് നമ്മളറിയും നമ്മുടെ അയൽപക്കത്തുള്ളതാണെങ്കിലോ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലോ നമുക്ക് അങ്ങനെ എവിടെയുള്ള നമുക്ക് പരിചയമുള്ള ആരുടേതാണെങ്കിലും നമ്മളവർക്കെപ്പോഴും വേണ്ടുന്ന സഹായങ്ങള് നമ്മളെപ്പോഴും ചെയ്തുകൊടുക്കും അതാണ് നമ്മള് മെയിനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോള് കയ്യോ കാലോ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്കൊന്ന് വീണാലും നമുക്ക് കയ്യൊടിയുകയോ കാലൊടിയുകയോ നമുക്കെപ്പോഴെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ പറ്റി കഴിയുമ്പോള് നമ്മളവർക്ക് ശരിയായ നല്ല ഹെൽപ്പ് അവർക്കെപ്പോഴും ആവശ്യമാണ് നമ്മുടെ ഹെല്പ്പ് വേണ്ട സമയത്ത് നമ്മളെപ്പോഴും അവർക്ക് നമ്മള് നന്നായി ഹെൽപ്പ് ചെയ്യും അതാണ് നമ്മള് മെയിനായിട്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള് പിന്നെ അവർക്ക് അവരുടെ വീട്ടുകാർക്കെന്തെങ്കിലും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കില് പൈസ കൊടുത്തൊക്കെ സഹായിക്കാനൊക്കെ നമ്മള് സഹായിക്കുകയൊക്കെ ചെയ്യും